ഏറ്റവും നമ്മള് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ സോഫ സോഫ അത് ഒരുപാട് നല്ല ഫെസിലിറ്റീസാണ് നമ്മള് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പൊൾ വരുന്ന മാർക്കറ്റില് വരുന്ന ഒരുപാട് സോഫകളുണ്ട് അതായത് സോഫ്റ്റ് നമ്മുടെ സ്പോഞ്ചൊന്നുമല്ലാതെ ചകിരി നിറച്ചിട്ട് ഭയങ്കര കുഷീനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് ഇരിക്കാനൊട്ടും സോഫ്റ്റ് അല്ല ഒട്ടും കംഫർട്ട് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റം ആണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പക്ഷേ അതില് സോഫയിലാണ് നമുക്ക് ഏറ്റവും പണി കിട്ടുന്നത് നമ്മള് ശ്രദ്ധിച്ച് എടുത്തില്ലെങ്കിൽ സോഫയുടെ കുഷീൻ നല്ല പണി തരും അതുപോലെ അതിന് ഉപയോഗിക്കുന്ന മരങ്ങള് മരങ്ങള് നോക്കണം അത് കുത്തിപ്പോകുന്നതാണോ നല്ല മരങ്ങളാണോ അല്ലെങ്കിൽ എങ്ങിനയാണോ അതിൻ്റെ സെറ്റിങ്സ് വരുന്നേ അത് നന്നായിട്ട് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റുവാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മള് അതില് ഏറ്റവും മൈനസ്സായിട്ട് നടക്കുന്ന കുഷീൻ്റെ വർക്കിലാണ് കുഷീൻ അടിപൊളി അല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല സോഫ എടുക്കുമ്പം അപ്പം എല്ലാവരും തന്നെ എന്തെയ്യുക സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്